വ്യാപാരവും വാണിജ്യവും ഉള്പ്പെടെയുള്ള പ്രാദേശിക സമ്പത് വ്യവസ്ഥയില് മലയാളഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മലയാളമെന്ന് പറയുന്ന നമ്മുടെ പ്രാദേശിക ഭാഷയാണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നത് കൂടുതലും ആള്ക്കാര്ക്കറിയാവുന്ന മലയാളമായിരിക്കും നമ്മൾ മറ്റു ഭാഷകളും സംസാരിക്കാറുണ്ട് എല്ലാവരും അതിൽ അത്ര അത്ര നന്നായിട്ടല്ലെങ്കിലും എല്ലാവര്ക്കും ആ ഭാഷ അറിയാം എങ്കിൽപ്പോലും ഒത്തിരി പ്രായമായ ആള്ക്കാര്ക്കെന്ന് പറയുമ്പം അവരുടെ അവരുടെ നിത്യോപയോഗ ഒരു സംഭവമാണ് എന്തെങ്കിലും കടയിൽ ഇപ്പം ഓ ഇപ്പം കടയിൽ പോവുക അല്ലെങ്കിൽ സാധനം വാങ്ങിക്കുക അവിടെ പൈസ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ നിത്യജീവിതത്തിലെ ഒരു കാര്യമാണ് അവർ സ്ഥിരം ചെയ്യുന്നൊരു കാര്യമാ അപ്പം അവിടെ ചെന്നിട്ട് ഇതേപോലെ വേറൊരു ഭാഷ സംസാരിക്കുക അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുകയാണെന്നുണ്ടെങ്കിലത് അത് നമുക്ക് അറിയാം എല്ലാവര്ക്കും ഒരുപോലെയായിരിക്കണമെന്നില്ല പലര്ക്കും ഒത്തിരി പേര്ക്കും ഇന്നും വേറൊരു ഭാഷയെന്ന് പറയുമ്പം അതൊരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കുന്നു അതൊരു തടസ്സമായിട്ട് നിൽക്കുന്നതാണ് അവരുടെ നിത്യജീവിതത്തിലെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് വേറൊരു ഭാഷ വന്ന് അത് അറിയാമല്ലോ നമുക്ക് സംസാരിക്കാന് പറ്റുന്നില്ല അല്ലെങ്കിൽ വേറൊരാളോട് നമ്മുടെ ആശയം പറഞ്ഞ് മനസ്സിലാക്കാന് പറ്റുന്നില്ലായെന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അതുകൊണ്ടുതന്നെ മലയാളത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമ്മുടെ ഭാഷയിലും നമ്മൾ സംസാരിച്ച് ഇതേപോലെയുള്ള നമ്മുടെ വ്യാപാരവും വാണിജ്യവുമൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോവുമ്പം ഉള്ള അതിന്റേതായിട്ടൊരു രീതി അതിപ്പം വേറെ നമുക്ക് തന്നെ അറിയാം ഇപ്പം വലിയ വലിയ കടകൾ അല്ലെങ്കിൽ മൊത്തം ഇംഗ്ലീഷ് സംസാരിക്കുന്ന കടകളൊന്നും നമ്മുടെ നാട്ടിലില്ല നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തൊരു കടയോ അല്ല അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രദേശത്തെ ആള്ക്കാരോട് സംസാരിക്കാന് പറ്റിയ അവരുമായിട്ട് ആശയവിനിമയം നടത്താന് പറ്റുന്ന ഒരു കടയായിരിക്കും നമുക്ക് എന്തായാലും തരുന്നത് അല്ല അതിന് അനുസരിച്ചുള്ള എന്താ പറയുക ആള്ക്കാരെയായിരിക്കും അവിടെ എന്തായാലും നിര്ത്തുന്നത് കാരണം അതെത്ര അത്യാവശ്യം ഉള്ളതാണ് ഒരു സ്ഥാപനം അത് അതിന്റെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവണം അല്ലെങ്കിലത് നല്ല രീതിയിൽ വളര്ന്ന് വരണമെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം ഏത് പ്രദേശത്താണോ ഇരിക്കുന്നത് ആ പ്രദേശത്തെ ആള്ക്കാരുമായിട്ട് ആ സ്ഥാപനത്തിനും സ്ഥാപനത്തിലുള്ള ആള്ക്കാര്ക്കും നല്ല രീതിയിൽ സാധാരണ രീതിയിൽ സംസാരിച്ച് ആശയവിനിമയം നടത്താനും മറ്റ് കാര്യങ്ങള്ക്കും സാധിക്കണം അതുകൊണ്ടുതന്നെ ഒരു പ്രദേശത്ത് ഇതേപോലെയൊരു വാണിജ്യ സ്ഥാപനം അല്ലെങ്കിലൊരു വ്യാപാരസ്ഥാപനം തുടങ്ങുമ്പോഴത്തേക്കിനും അതിന് പറ്റിയ രീതിയിൽ നമ്മുടെ പ്രാദേശിക ഭാഷ അറിയാവുന്നവരെയായിരിക്കും അവിടെ നിര്ത്തുന്നത് അതുപോലെ പ്രാദേശിക ഭാഷ അതിനൊരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് അതിന് പറ്റുന്ന ആള്ക്കാരെയായിരിക്കും നമ്മളവിടെ നിര്ത്തുന്നത് അതുകൊണ്ടുതന്നെ ഞാന് എന്റെയൊരിതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യപാരവും വാണിജ്യവും ഒക്കെ ഉള്പ്പെടുത്തുന്ന അപ്പം അതിൽ ഉള്പ്പെടെയുള്ള പ്രാദേശിക സമ്പത്ത് വ്യവസ്ഥകള്ക്ക് മലയാള ഭാഷ വളരെ ഇതിൽ ഉപയോഗപ്പെടുന്നുണ്ട് ആ മലയാള ഭാഷയിൽനിന്ന് അങ്ങനെയേ ആ കടയ്ക്ക് വളരാന് സാധിക്കൂ കടയാണേലും എന്തൊരു സ്ഥാപനമായാലും ഇങ്ങനെ നമുക്കൊന്നും അറിയാന് മേലാത്ത ഒരു ഭയങ്കരം ഇതായിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ കേറി കേറി പോകത്തില്ല കേറിയാൽത്തന്നെ പിന്നീട് നമ്മൾ കേറത്തില്ല ഒരു സ്ഥാപനത്തില് ഒരാൾ ഒരു തവണ കേറിയാൽ പോരല്ലോ വീണ്ടും വീണ്ടും കേറുംവരെ ആ സ്ഥാപനം വളരത്തുളളൂ അതുകൊണ്ടുതന്നെ പ്രാദേശിക ഭാഷ അതിന് ഒരുപാട് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് ഞാന് വിചാരിക്കുന്നത്